ഹലോ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്യാന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഇത് ട്രാവലിങ് ഏജന്സി അല്ലെ കഴിഞ്ഞവര്ഷം ഞങ്ങളിതേപോലെ ഒരു ട്രിപ്പ് പോവാന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെത്തന്നെ ഈ മാസവും ഒരു യാത്രയുണ്ട് അത് ഊട്ടിയിലേയ്ക്കാണ് കഴിഞ്ഞപ്രാവശ്യം പോയതും ഊട്ടിയില് തന്നെയായിരുന്നു അപ്പോള് ഇപ്രാവശ്യം ഊട്ടിയിലേയ്ക്ക് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതേപോലെ നിങ്ങളുടെ ഒരു സേവനം ഞങ്ങള്ക്കു കഴിഞ്ഞപ്രാവശ്യം വളരേയൊരു ഉപകാരപ്രദമായിരുന്നു കാരണം ഞാനേ ഒരു ഒരു അധ്യാപികയാണ് അപ്പോള് എന്റെ കൂടെ അഞ്ചാറ് കുട്ടികളും പിന്നെ അവരുടെ പാരന്സും പിന്നെ വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോള് ഞങ്ങള്ക്ക് വളരേ ഉപകാരപ്രദമായിരുന്നു നിങ്ങളുടെ ഒരു സേവനം പറഞ്ഞ് ഞങ്ങള് അന്ന് പോയത് എന്താപറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ സ്ഥലത്തും ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് വളരേ സമാധാനമായിട്ടാണ് ഞങ്ങളവിടെ അന്ന് എത്തിയത് അന്നെത്തിയ സമയത്ത് ഒരുപാട് സ്ഥലത്ത് ഞങ്ങള് കഴിഞ്ഞപ്രാവശ്യം അതിന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ പോവുകയുണ്ടായി അപ്പോള് അപ്പഴാ സമയത്ത് പോയ മുന്നേ പോയ സ്ഥലത്തിനേക്കാട്ടിലൊരുപാട് സ്ഥലങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോള് കാണാന് ഞങ്ങള്ക്ക് സാധിച്ചു അപ്പോള് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ക്യാബ് തന്നെ ബുക്ക് ചെയ്യാന് വേണ്ടിയിട്ടായിരുന്നു ഞാന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങള് പോവാന് ഉദേശിക്കുന്ന തീയതി എന്ന് പറയുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് ആ ദിവസത്തേക്ക് നിങ്ങള്ക്ക് വേറെ ബുക്കിങ്ങെന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ലെങ്കില് ഞാന് ഈ ഞാന് ചെയ്യുന്ന ഈ ബുക്ക് നിങ്ങള് സ്വീകരിക്കണം എന്നിട്ട് ഞങ്ങളെ ആ ഒരു ട്രിപ്പ് കൊണ്ടുപോവാന് ഞങ്ങളെ സഹായിക്കണം